നമ്മുടെ പിള്ളേർ മക്കൾ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് കാരണം ദേശീയ തലത്തില് ടീം മൂന്ന് നാല് മെഡലുകൾ മേടിച്ചു നമ്മുടെ മക്കളെ കൊണ്ട് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ അറിയിക്കുകയും കോട്ടയത്തെ ഒരു ചെറിയ കുഗ്രാമത്തിൽ നിന്ന് വന്ന ആ പിള്ളേർ മക്കൾ നമ്മുടെ ഈ കുഗ്രാമത്തെ ഇത്രയും അറിയപ്പെടുന്ന ഒരു നാടായി എഴുതിയത് അവർ അറിയിപ്പ് അറിയിച്ചത് നമ്മുടെ മക്കളാണ് കാരണം അവരുടെ ദീർഘം അവരുടെ ചെറുപ്പം മുതലേ ഉള്ള അവരുടെ ദീർഘമായ പരിശീലനവും ദീർഘമായുള്ള ആഗ്രഹവുമാണ് അവരെ ഇത്രയും എത്തിക്കാൻ സാധിച്ചത് ഇനിയും അവർ മുന്നോട്ട് കൂടുതൽ പോകുമെന്നാണ് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ല രീതിയിൽ ഉള്ള രീതിയിലാണ് അവർ നല്ല അവർ നല്ല ഒരു ഇതാണ് നമ്മുടെ മക്കൾ എന്നു പറഞ്ഞാൽ ഉണ്ടല്ലോ അവർ നല്ല ഒരു ഹാർഡ് വർക്കിംഗ് ആൻഡ് റീലി അമേസിംഗ് രീതിയാണ് അപ്പോഴേക്കും നമ്മുടെ മക്കൾ ഇല്ലായിരുന്നെങ്കില് ഒരു രീതിലുള്ള ഒരു അറിയപ്പെടുകളോ എന്നാൽ ഈവൻ ഞാനൊക്കെ ആരാണെന്ന് വരെ ഈ ഇപ്പോൾ ഈ കാണുന്ന പ്രേഷകര് ചോദിച്ചാൽ നമ്മുടെ അവരുടെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വലിയ ഒരു ഓട്ടക്കാരൻ ആവണം എന്ന് എൻ്റെ മകന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ അവനെ ശകാരിച്ചു കാരണം ഉള്ള നേരത്ത് പഠിച്ചു നമ്മുടെ പണ്ട് തൊട്ടുള്ള നാട്ടിൻ പുറം രീതിയിൽ ഉള്ള ഒരു രീതിയിൽ ഉള്ള നേരത്ത് പഠിച്ചു നാല് ജോലി മേടിക്കെടാ എന്നുള്ള രീതിയിൽ അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാന് നോക്കി എന്നാലും അവന്റെ ദീർഘമായ ആഗ്രഹം കാരണം ഞാൻ അവസാനം വിട്ടു പക്ഷെ അതിന്റെ അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടായത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ ഒരിക്കലും എട്ടര കഴിയാതെ കട്ടിലിൽ നിന്ന് പൊങ്ങാത്ത അവൻ ഡെയ്ലി അഞ്ച് മണിക്ക് എണീറ്റ് ഓടാൻ പോകുന്നത് കണ്ടു എൻ്റെ മനസ് കുതിര്ന്നു അപ്പഴേക്കും എനിക്ക് മനസ്സിലായി ഇതാണ് അവൻ്റെ പാഷൻ ഇതാണ് അവൻ്റെ ജീവിതശൈലി എങ്കിൽ എന്നാൽ അതായിക്കോട്ടെ എന്നു ഞാൻ വിചാരിച്ചു വിട്ടു

കാരണം എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതു പോലും ഇല്ലായിരുന്നു എന്തു നല്ല രീതിയിൽ ആണ് ആ ചെറുക്കൻ എൻ്റെ മകൻ എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള അവരുടെ അവന്റെ അവന്റെ കൂട്ടുകാരും അവൻ്റെ കൂടുതലുള്ള അവന്റെ ആ പരിശീലകനും ഉൾപ്പെടെ എല്ലാവരും എന്തു നല്ല രീതിയിലാണ് അവനെ പരിശീലിപ്പിച്ചത് കാരണം ഏറ്റവും നല്ലതായ രീതിയിൽ പറ്റുന്ന രീതിയിൽ എല്ലാം അവനെ ഇത് ചെയ്തിട്ടുണ്ട് കാരണം അവരാണ് അവരാണ് ഇതിന് നെടും തൂൺ അവരെ കൊണ്ട് അല്ലാതെ വേറെ ആരെക്കൊണ്ടും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഇല്ല അവരുടെ ദീര്ഘമായ ആഗ്രഹമാണ് അവരെ ഇവിടെ ഇത്രയും നാള് ഇത്രയും എത്തിച്ചത് ആഗ്രഹം ഉണ്ടായാൽ നമുക്ക് അതിനുള്ള പരിശീലിക്കാനുള്ള ഒരു പ്രചോദനം രണ്ടും ആഗ്രഹമോ പ്രചോദനോ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവരുടെ ദീർഘമായ ആഗ്രഹവും അവരുടെ ദീർഘമായ പരിശീലനവും കൊണ്ടാണ് അവരെ ഇത്രയും എത്തിച്ചത് കാരണം അവർ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ഇത് ഇല്ലായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഇത്രയും എത്തിച്ചേരുക ഇല്ലായിരുന്നു അവരെ പോലെയുള്ള ഈ യുവ തലമുറയ്ക്ക് ഇത്ര ഇത് ഈ ഇവയെ പോലെയുള്ളത് യുവതലമുറയ്ക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു മാതൃക കാരണം അവർ ഏറ്റവും നല്ല രീതിയിലാണ് എല്ലാം ചെയ്തത് നമ്മുടെ ഇത് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോഴേക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതായ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കോട്ടയംകാരായ ഈ കുറുപ്പുംതുറക്കാർ നമുക്ക് ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കാം